ഞാൻ ബർഗർ ഓർഡർ ചെയ്തിട്ട് മണിക്കൂർ നാലായി രണ്ടരയ്ക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതെ അഞ്ചു മണിയായിട്ട് അടക്കം ബർഗർ എത്തിയിട്ടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങളെ ഓർഡർ എത്രയും പെട്ടെന്ന് എത്തിക്കുക അല്ലെങ്കിൽ എനിക്ക് ഞാൻ പേയ്മെന്റ് ചെയ്തത് റീഫണ്ട് ചെയ്ത് തരിക എന്തെങ്കിലും പരിഹാരം അതിന് ചെയ്തേ പറ്റൂ നിങ്ങൾ കമ്പനിക്കാർ നേരാംവണ്ണം ചെയ്യേണ്ടതല്ലേ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഓർഡറുകൾ ഒക്കെ കറക്ട് ടൈമിൽ കൊടുക്കേണ്ടതല്ലേ ഇത് നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ്